ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മൊബൈൽ ആപ്പില് പൈസ അടച്ചതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാത്ത അത് അത് ലോഗിൻ ചെയ്ത് ആപ്പ് ലോഗിൻ ചെയ്ത് അതിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതി പൈസ അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലായെങ്കില് പിന്നെ അത് വീണ്ടും അത് അടയ്ക്കേണ്ടി വരും അത് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതിനകത്തെ ടെക്നിക്കലായിയിട്ടുള്ള എറർ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പിന്നെ കൺഫർമേഷൻ കിട്ടാത്തത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാവും